മലയാളത്തിൽ സംസാരിക്കുമ്പോൾ പലതരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് വായനയിലും ചിലരോട് സംസാരിക്കുമ്പോളും ചിലരുടെ ഭാഷ ചിലരുടെ സംസാര രീതി പലപ്പോഴും സ്പീഡിലും വേഗതയിലും പെട്ടെന്ന് മനസ്സിലാവാത്ത രീതിയിലുമായിരിക്കും ചിലരുയുടെ സംസാരം ചിലർ അതിനെ ഒരു പ്രശ്നമായി എടുക്കാറില്ല പല നാടുകളിലും പല ഭാഷ രീതിയാണ് മലയാള ഭാഷയിൽ പല സംസാര രീതികളാണ് മലയാള ഭാഷയിലുള്ളത് ചിലർ സ്പീഡിൽ പറയുമ്പോൾ ചിലർ പതുക്കെ പറയും എന്നാൽ ചിലർ ഇടറി ഇടറി പറയുമ്പോൾ ചിലർ എളുപ്പമായി പറയുന്നു മലയാള ഭാഷ പുറത്തുള്ള രാജ്യങ്ങളിൽ പോയാൽ ബുദ്ധിമുട്ടും കാരണം അവിടെയുള്ളവർക്ക് മലയാളം അറിയുകയില്ല എന്നാൽ മറ്റു ചിലർ മലയാത്തെ ആസ്പദമാക്കി കേരളത്തിൽ ജീവിക്കുകയാണ് മലയാളം കേരള കേരളീയരുടെ മാതൃഭാഷയാണ് മലയാളം പഠിക്കുന്നത് തന്നെ അവരുടെ മാതാപിതാക്കളിൽ നിന്നാണ് മലയാളം വായനകളിലും മറ്റു ചിലതിലും നമ്മെ കാണാൻ സഹായിക്കുന്നുണ്ട്